ഇത് ടൂറിസ്റ്റ് ഗെയ്ഡാണോ അങ്ങനെയാണ് ഞാന് ക്ലാരയാണ് ഞാന് ജർമ്മനീന്ന് വര് വരുന്നതാണ് എനിക്ക് റബ്ബറിനെപ്പറ്റിയൊന്ന് റബ്ബർ തോട്ടത്തെപ്പറ്റിയൊന്ന് കാണാനും റബ്ബറിനെപ്പറ്റിയൊക്കെയൊന്നറിയാനായിട്ടും ഒക്കെ ആണ് ഞാന് ഇപ്പോള് വിളിച്ചത് അവടെവന്നാല് നമുക്കതൊക്കെയൊന്നു കാണാനും അറിയാനൊക്കെ പറ്റുമോ ചെറിയ മരം തൊട്ട് വലിയ മരങ്ങള് വരെയുണ്ടോ അത് പാലൊക്കെയെടുത്ത് നമ്മള് ഒറയൊക്കെയൊഴിച്ച് ഷീറ്റൊക്കെയാക്കുമ്പോള് ആണല്ലോല്ലേ അതൊക്കെ കാ

അതൊക്കെല്ലാമവിടെവന്നു നിന്നാല് കാണാൻ പറ്റുവായിരിക്കുവല്ലേ ഞ ഞങ്ങള് കുറേ ഫ്രണ്ട്സെല്ലാരുമുണ്ട് കൂട്ട് അവര് കാണാത്തയാൾക്കാരുമെല്ലാവരുമുണ്ടാകും അവർക്കുടെവന്നുകഴിഞ്ഞാല് നമ്മള്ക്കതിനു സൗകര്യമൊക്കെയുണ്ടല്ലോ കാണാനായിട്ടെടുക്കാനും ആ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നുകഴിഞ്ഞാല് നിങ്ങള്ക്കൊന്നു പറഞ്ഞു കൊടുക്കാനൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനും എടുക്കാനൊക്കെയായിട്ടൊക്കെ നമുക്ക് പറ്റുമല്ലോ അല്ലെ ആ കാരണം അവർക്ക് ജർമ്മനീന്നൊക്കെ വരുന്നതുകൊണ്ട് അവർക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണെ ആ ആ അയ്യോ റബ്ബറീനിന്നെന്തൊക്കെ ഉണ്ടാക്കാന് പറ്റും

ഞങ്ങടെ നാട്ടില് കൃഷിചെയ്യാൻ പറ്റുവോ റബ്ബര് ഞങ്ങടെ നാട്ടില് വെയില് കുറവാണ് അപ്പോള് നമ്മള് പിടിപ്പിച്ചാല് പിടിക്കാൻ പറ്റുമോ നഷ്ടമായിരിക്കുവല്ലേ നമ്മള്ക്കവിടെ സ്ഥലം കിട്ടുമോ നമ്മളവിടെ വന്നുകഴിഞ്ഞാല് നമ്മള്ക്കു റബര്ത്തോട്ട സ്ഥലം നമ്മള്ക്കു കിട്ടുമോ മേടിക്കാനായിട്ട് കറുകച്ചാലിലൊക്ക സ്ഥലമുണ്ടോ നമ്മള്ക്കു മരം ചെത്താനും മരം വെട്ടാനായിട്ടൊക്കെ കിട്ടുവോ ശരി എനിക്ക് എനിക്ക് കറുകച്ചാലിലില്ലേ നമ്മുടെയാ അവടെയിരുന്നോട്ടോ ഓടിക്കുന്ന സജീടെ വീടിൻറ്റെയാ ഭാഗത്തായിട്ട് അടുത്തെവിടേലും സ്ഥലം കിട്ടുവോ

അതിരമ്പഴയുണ്ട് അതിരമ്പുഴയില് സ്ഥലത്തിന് ഭയങ്കര വിലയാണ് അപ്പോഴെനിക്ക് ലൗലീടടുത്ത് സ്ഥലം മേടിക്കുന്നതിനോട് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ടും ചോദിച്ചത് പിന്നെയിത് വെച്ച് പിടിപ്പിക്കുന്നതെങ്ങനെയാ ഇത് സ്ഥലം ഈ മരം വച്ചുപിടിപ്പിക്കുന്നതെങ്ങനാണെന്നു പറഞ്ഞുതരാവോ ആ എങ്കില് നമുക്കു ഞാൻ ശെ ശരി നമുക്ക് അടുത്ത തവണ കാണാം കേട്ടോ ഞാൻ വരാവേ അടുത്ത തവണ കാണാം